നമ്മുടെ പ്രദേശത്ത് വരുന്നത് പകുതി മുക്കാലും മലയാളികൾ ആണ് അതുകൊണ്ടുതന്നെ അവർ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കാനാണ് കൂടുതലും അവസരം ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം അറിയാം പിന്നെ മറ്റ് ജില്ലയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ യൂറോപ്യൻ കൺട്രീസ് പോലുള്ള അവിടെ നിന്നൊക്കെ വരികയാണെങ്കിൽ തന്നെ അവർക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള ലാംഗ്വേജൊക്കെ അറിയുന്നതാണ് ഇംഗ്ലീഷ് മലയാളം കന്നട അങ്ങനെ പല പല ലാംഗ്വേജസ് എല്ലാം അറിയുന്നതാണ് മലയാളമാണ് എന്നാലും കൂടുതൽ ഇവർക്ക് ആവിശ്യമുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് വരുന്നത് വരാറ് ടൂറിസ്റ്റ് വരാറ് അതുകൊണ്ടുതന്നെ മലയാളത്തിൽ നിനാണ് മലയാളം ആണ് ഇവർക്ക് കൂടുതൽ വേണ്ടി വരുക മറ്റ് മറ്റു ഭാഷകൾ വേണമെങ്കിൽ തന്നെ അത് ഇവർക്ക് അറിയാവുന്നതാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡിന് ഏകദേശം എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കും അറിഞ്ഞിരിക്കും അത് അറിയുന്നത് അവർക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ലെങ്കിൽ തന്നെ അത് അവർ പഠിച്ചെടുക്കുകയും അവരത് യൂസ് ആക്കുകയും ചെയ്യാറുണ്ട്